സംസ്കൃതത്തിൽ നിന്നാണ് മലയാളം ഭാഷയിലെ അല്ലെങ്കിൽ മലയാളം പദങ്ങൾ ഒരുപാട് രൂപപ്പെട്ടിട്ടുള്ളത് മലയാളംന്ന് പറയുന്നത് നമ്മുടെ മാതൃഭാഷയാണെങ്കിൽ പോലും ഇന്നും മലയാളത്തിനേക്കാളും നമ്മൾ ഒരുപാട് ഉപയോഗിക്കുന്ന എല്ലാ സന്ദർഭത്തിലും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഭാഷയാണ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഇപ്പം വിദേശത്ത് പോകാനായിക്കോട്ടെ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ജോലി സംബന്ധമായ കാര്യത്തിനായിക്കോട്ടെ നമ്മൾ പഠിക്കുന്നതിന് ആയിക്കോട്ടെ ഇംഗ്ലീഷ് ആണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഭാഷ നമുക്കേതൊരു അവസരത്തിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഭാഷയാണ് ഇംഗ്ലീഷ് ഇംഗ്ലീഷിൻ്റെ പഠന രീതിയും അല്ലെങ്കിൽ അതിനുവേണ്ടിട്ടുള്ള സാഹചര്യം ഒരുക്കാനും ആണ് ഇന്ന് സർക്കാരുകൾ ഒരുപാട് നിലകൊള്ളുന്നത് അപ്പം ഇംഗ്ലീഷ് ഭാഷയാണ് മാതൃഭാഷയെക്കാളും ഇന്നു മുന്നിട്ടുനിൽക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ രെ മുന്നോട്ടു പോകുവാൻ തന്നെ ഇംഗ്ലീഷ് ഭാഷ നമ്മെ സഹായിക്കുന്നുണ്ട് എന്ന് കരുതി മലയാളം ഭാഷ ഏറ്റവും അവസാനം എന്നുള്ള നിലയിൽ അല്ല മലയാളം നമ്മളുടെ മാതൃഭാഷയാണെങ്കിൽ പോലും ഇംഗ്ലീഷ് എന്ന ഭാഷക്കാണ് ഇന്ന് നമ്മൾ മലയാളികൾ ആയിക്കോട്ടെ പുറമേയുള്ള ആൾക്കാർ ആയിക്കോട്ടെ പ്രാധാന്യം കൊടുക്കുന്നത് ഇംഗ്ലീഷ് ഭാഷക്കാണ്